കുഴപ്പമില്ലാതെ രീതിയിൽ നമ്മൾ തിരിച്ചുവരും പിന്നെ അവരെ സംരക്ഷിക്കാൻ വേണ്ടി ഗൈഡുകളുണ്ട് വന അതിർത്തികളാണെങ്കിൽ അതിനനുസരിച്ച് ഗൈഡുകൾ ഉള്ളത്കൊണ്ട് നമുക്കും ഒരു സംരക്ഷണമാണ് അവർക്കും ഒരു സംരക്ഷണമാണ് അതിലൂടെ നൽകുന്നത്